ഹലോ മേഘനയാ എന്തിൻ്റെ മീറ്റിങ്ങാ ആ ഇതാണോ കൗൺസിലിങ്ങാണോ ആ കൗൺസിലിങ് ക്ലാസ് ഇനി ഇപ്പോൾ നമുക്ക് ഈ ഗർഭിണികൾക്ക് കുറച്ച് ഫുഡ്സ് കൊടുക്കുന്നുണ്ട് ഈ അമൃതം പൊടി അതൊക്കെ ആ ആ ആ ഫുഡ് കൊടുക്കും ആ സമയത്ത് എന്തായാലും ഒരു മീറ്റിംഗ് വിളിക്കണം അപ്പോൾ എന്ന് ആ വരുന്ന സമയത്ത് കുറെ പേരുണ്ടാവുമല്ലോ അപ്പം വിൽക്കാമെന്നുള്ള കണ്ടീഷനിലാണ് എവിടെയാണ് ആ ആ ഓക്കെ ഓക്കെ ആ ആ നീ പറഞ്ഞാൽ മതി ആ അവരെയും വേണമെങ്കിൽ ഉൾപ്പെടുത്താം അവരെയും വിളിക്കാം ആ സമയം ആകുമ്പോൾ ഗ്രൂപ്പിലൊന്ന് പറയാം അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലോ ആ കൗമാര കുട്ടികൾക്കും ഫുഡുണ്ട് അപ്പോൾ ഗ്രൂപ്പ് നമുക്ക് ഒരു ഗ്രൂപ്പുണ്ടാക്കണം അത് വെച്ചിട്ട് പറയാം ആ അതിലെന്ന ഇടാ ഏ ആ ആ ഓക്കെ നിങ്ങൾ സ്ഥലം എവിടെയായിരുന്നു ആ ആ നിങ്ങൾ അവിടെ തന്നെയാലേ ആ ഓക്കെ എന്നാൽ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വെക്കാം

എപ്പോൾ ആ ആ ഓക്കെ ഓക്കെ

അപ്പോൾ എന്താ ഒരു കുറച്ച് കൊ എത്രയാണ് പന്ത്രണ്ടോ പതിനാലോ അങ്ങനെ എന്തൊക്കെയാണ് അമൃതപ്പൊടി പേക്കറ്റൊ അങ്ങനെ എന്തോ അപ്പോൾ അവരോടൊന്ന് സൂചിപ്പിക്കണം കേട്ടോ ആ ഓക്കെ എല്ലാവരോടും പറഞ്ഞോ എന്നാൽ ശരി ഓക്കെ ആ ഓക്കെ ഓക്കെ താങ്ക് യൂ ശരി